സാങ്കേതികവിദ്യയുടെ ഉപയോഗം നമുക്ക് ചുറ്റുമുള്ള മാറ്റിവെച്ചതെന്നുവെച്ചാല് പണ്ടത്തെ കാലത്തൊക്കെ നമ്മള്ക്ക് നമ്മള് ആള്ക്കാരുമായിട്ട് കൂടുതലും സംസാരിച്ചുകൊണ്ടിരുന്നത് നേരിട്ടായിരുന്നു ഫോണിലൊന്നുമല്ലാതെ കാണുമ്പോള് സംസാരിച്ച് അന്നേരം നമ്മുടെ ചുറ്റുവട്ടം നമ്മളെ അടുത്തടുത്ത് വീടുകളുള്ളവരോടെല്ലാം നല്ലപോലെ സംസാരിച്ചത് പക്ഷേ ഫോണ് വന്നതിന് ശേഷം നമ്മളെല്ലാവരും ഫോണുമായിട്ട് മാത്രമാണ് ഫോണിലൂടെ മാത്രമേ നമുക്ക് ഫോണിനെക്കുറിച്ച് ഒത്തിരി ഗുണങ്ങളുണ്ട് ദൂരെയുള്ള ആള്ക്കാരെയൊക്കെ നമുക്ക് ഫോണില് കൂടെ കാണാം വീഡിയോ കോള് ചെയ്യാം വാട്സപ്പ് കോള് വീഡിയോ കോളെല്ലാം ചെയ്യാം പക്ഷേ എങ്കില് നമ്മള് നമ്മുടെ അടുത്തടുത്തുള്ള നമ്മള് ഫോണിലൂടെയല്ലാതെ നേരിട്ടുള്ള സംസാരമെല്ലാം കുറഞ്ഞു ഈ ഫോണിന്റെ ദൂഷ്യഫലങ്ങളെന്നുവെച്ചാല് നമ്മള് ഫോണ് എപ്പോഴും ഫോണ് നോക്കിക്കൊണ്ടിരിക്കുമ്പോള് നമ്മുടെ കണ്ണ് പ്രശ്നമാകും കണ്ണ് കേടാവും അതേപോലെത്തന്നെ നമ്മള് പണ്ടൊക്കെ നാല് പേരൊക്കെ കൂടുമ്പോഴുമെല്ലാം നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് വീടുകളിലൊക്കെയെന്ന് പറഞ്ഞാല് ഫോണൊന്നുമില്ലായിരുന്നു എല്ലാവരും കഴിക്കാന് നേരത്തുമെല്ലാം ഒരുമിച്ച് ഒരുമിച്ച് കൂടി സംസാരിച്ച് കളി പറഞ്ഞ് അങ്ങനെയൊക്കെയായിരുന്നു ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കില് എന്തെങ്കിലും വൈകിട്ട് ചായകുടി അതിന്റെ കൂടെ സംസാരവുമൊക്കെയുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഫോണൊക്കെ വന്നതിന് ശേഷം കഴിക്കാന് നേരത്തും ഫോണ് വെറുതെ ഇരിക്കാന് നേരത്തും ഫോണ് നമ്മള് ആള്ക്കാരുമായിട്ട് നമ്മള് ഫോണിലൂടെ മാത്രമായി സംസാരം ഫോണില് മാത്രമായി നമ്മള് നേരിട്ട് കണ്ടാല് പോലും നമ്മളിപ്പോള് അധികം സംസാരമില്ല അതേപോലെത്തന്നെ നമ്മളെപ്പോഴും ഫോണില് ഇങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് നമ്മുടെ കണ്ണ് പ്രശ്നമാകും നമ്മുടെ ആരോഗ്യങ്ങള്ക്ക് പ്രശ്നമാകും നമ്മുടെ ഉറക്കം കുറഞ്ഞ് നമ്മള് പണ്ടൊക്കെ ആള്ക്കാരുമായിട്ട് കൂടുതലായിട്ട് സംസാരിച്ച് എല്ലാം നേരിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മളിപ്പോള് കുറെ കുറെ കാര്യങ്ങള് നമ്മളിപ്പോള് എല്ലാവരുമായിട്ട് സംസാരിച്ച് അടുത്തൊക്കെ ഇരുന്ന് പക്ഷേ ഇന്നത്തെ കാലത്ത് ഫോണ് വന്നതോടുകൂടി നമ്മളിപ്പോള് നാലാള് കൂടുവാണെങ്കിലും എല്ലാവരും ഓരോ മൂലയില് ഫോണുമായിട്ടങ്ങിരിക്കും പിന്നെ നമ്മള് അങ്ങോട്ട് നോക്കാനേ പോകത്തില്ല നമ്മളെല്ലാരോടുമായിട്ട് സംസാരിച്ച് പണ്ടത്തെ കാലത്ത് നമ്മളെന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കില് നല്ല രസമായിരുന്നു എല്ലാവരും കൂടി കളി ചിരി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് പറഞ്ഞ് പരദൂഷണവും പിന്നെ അക്കാര്യങ്ങളും ഇക്കാര്യങ്ങളും അടി ഇടി കളികള് അങ്ങനെ പക്ഷേ ഇന്നത്തെ കാലത്ത് ആഘോഷങ്ങളെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കില് നാലാള് കൂടുന്നയിടത്ത് എല്ലാവര്ക്കും എല്ലാവരുടെ കൈയിലും ഓരോ ഫോണ് വെച്ചിട്ടുണ്ട് ഫോണും കൊണ്ടോരോ മൂലയിലങ്ങിരിക്കുക ആരും അധികം സംസാരിക്കത്തില്ല സംസാരിക്കും ഫോണിലൂടെ സംസാരിക്കും പക്ഷേങ്കില് നേരിട്ട് കാണുമ്പോള് അധികം സംസാരമൊന്നുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിച്ചിതറി പോയി നമ്മള് ഫോണിലൂടെയായിരുന്നു പണ്ടൊക്കെ പണ്ടൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതെല്ലാം ഇപ്പം ഫോണിലായി ഫോണും കൊണ്ടോരോ മൂലയില് ഒരോരുത്തര് പോയങ്ങിരിക്കും അപ്പം നമ്മള്ക്ക് അധികം സംസാരവുമില്ല ഒന്നുമില്ല നമ്മള് പണ്ടത്തെ കാലത്ത് എല്ലാവരും നല്ലപോലെയൊക്കെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു മുഖത്ത് നോക്കി സംസാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പം ഫോൺ വന്നതോടുകൂടി എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ എല്ലാവരും ഫോണിലാണ് ഫോണിൽത്തന്നെ ഓരോ മൂലയിൽ ഓരോരുത്തരും പണ്ടൊക്കെ പിള്ളേരുടെ കയ്യിലൊന്നും ഫോണില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിലെടുത്താൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും പേർക്കും ഫോൺ കാണും കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ വരെ ഫോൺ കാണും അവരും ഫോൺ നോക്കി ഓരോ സൈഡിൽ എന്തെങ്കിലുമൊക്കെ ഫോണിനകത്ത് കളിച്ചുകൊണ്ടൊക്കെ പണ്ടത്തെക്കാലത്ത് പിള്ളേരുതമ്മിൽ വീട്ടിൽ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ഓടിക്കളിക്കുകയും സാറ്റ് കളി അങ്ങനെ ഇങ്ങനെ കുറെ പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരും കൂടുകയാണെങ്കിലും ഫോണിലുള്ള കളികളേയുള്ളൂ ആരുമധികം വീടുകളിലുള്ള കളികളൊന്നുമില്ല അതേപോലെത്തന്നെ സംസാരമില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഫോണും കൊണ്ടൊരോ മൂലയിൽ പോയിരിക്കും അങ്ങനെയങ്ങനെ അങ്ങനെ പിന്നെ കുറെ കാര്യങ്ങളുണ്ട് ഫോൺ വന്നതോടുകൂടി ആ ഒരു എല്ലാവരുമായിട്ടുള്ള ഇടപഴകുന്ന നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ഇടപഴകുന്ന രീതി നമ്മൾക്കിപ്പം പണ്ടൊക്കെ എന്തുണ്ടെങ്കിലും നമ്മളെല്ലാവരോടുമത് പറയും പക്ഷേ ഇന്നത്തെക്കാലത്ത് എന്തെങ്കിലുമൊക്കെ പറയാൻ നമുക്ക് പേടിയാണ് അതേപോലെ സ്റ്റേജ് ഫിയർ അതുമിതുമെല്ലാമുണ്ട് പണ്ടത്തെ നമ്മൾക്ക് നമുക്കെന്ത് തോന്നിയാൽ അതങ്ങ് പറയുമായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം നമുക്ക് എല്ലാത്തിനോടും പേടിയാണ് നമ്മൾ ഫോണിലൂടെ മാത്രമായിട്ട് ഫോണിലൂടെ ഫോണായി നമ്മുടെ ജീവിതം അതോടുകൂടി നമ്മുടെ നമ്മൂടെയെല്ലാം ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളറിയുന്നുണ്ട് പക്ഷേ അത് ഫോണിലൂടെയാണെന്നേയുള്ളൂ നമ്മൾ നേരിട്ട് പോയി സംസാരിച്ച് അവരുമായിട്ട് കൂടി നാലാൾ കൂടുന്നയിടത്തൊക്കെ നമ്മൾ സംസാരിച്ചിരിക്കുന്ന രീതി ഫോൺ ഫോൺ വന്നതോടുകൂടി ഫോണുമായിട്ട് ഓരോ മൂലയിൽ എല്ലാവരും പോയിരിക്കുന്നതേയുള്ളൂ അതേപോലെത്തന്നെ പണ്ടൊക്കെ ആയിരുന്നുവെങ്കിൽ എല്ലാവരും സഹോദരങ്ങളും അവരുമിവരുമെല്ലാം ഒത്തിരി പേരുണ്ടായിരുന്നു അവർ കളി ചിരി ആഹാരം ആഹാരം കഴിക്കാൻ നേരത്ത് ഒരുമിച്ചൊക്കെ ഇരുന്ന് നല്ലപോലെ പക്ഷേ ഇന്നത്തെക്കാലത്ത് ആഹാരം കഴിക്കാൻ പോലും എല്ലാവരും ഫോണും കണ്ടുകൊണ്ടാഹാരം കഴിക്കത്തുള്ളൂ നമ്മളീ ഫോൺ കൂടുതലുപയോഗിക്കുന്നതു ദൂഷ്യഫലങ്ങളുമുണ്ട് അതേപോലെത്തന്നെ ഫോൺ നമുക്ക് ദുരുപയോഗം ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും കണ്ണിന് കാഴ്ച പോകും കണ്ണിൻറെ കണ്ണിന് പ്രശ്നമാകും അതേപോലെ നമ്മൾക്ക് ഉറക്കമില്ലായ്മ എന്നും രാത്രിയും രാത്രി ഒക്കെ ഒത്തിരി നേരമൊക്കെ ഫോണൊക്കെ നോക്കിക്കോണ്ടിരുന്ന് അങ്ങനെയങ്ങനെ നമ്മൾ നമ്മൾ നേരത്തെയൊക്കെ കിടന്നുകൊണ്ടിരുന്നത് എട്ട് മണി പത്ത് മണിയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പം ഫോൺ നോക്കിയിരുന്നിരുന്ന് നാല് മണിക്കാണ് കിടക്കുന്നത് എന്നിട്ട് പകലൊക്കെ ഉറങ്ങുക രാത്രി ഫോൺ നോക്കുക അതുമിതും അങ്ങനെ ഒത്തിരി ദൂഷ്യഫലങ്ങളുണ്ട് നമ്മൾ ഫോൺ വന്നതോടുകൂടി നമ്മൾ ചുറ്റുമുള്ള ലോകവുമായിട്ട് നമ്മൾ നമ്മളും നമ്മളുടെ ഫോൺ നമ്മൾ പണ്ടൊക്കെ ആയിരുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരുമായിട്ട് ഭയങ്കരമൊരു പക്ഷേ ഇപ്പം നമ്മളും ഫോണും മാത്രമായ ഒരു ചെറിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്